കർഷകർ കോഴിയെ വളത്താനായിട്ട് കൊണ്ട് പോവുന്നൊരു ഇന്നത്തെ കാലത്ത് കോഴിയെ വളർത്തൊക്കെ ഭയങ്കര വെല്ലുവിളി ഉള്ള കാര്യങ്ങളാണ് കോഴിയെ മേടിക്കുക വളർത്തുകാന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ സ്ഥാ കാര്യം സ്ഥല പരിമിതി ഞങ്ങളുടെ കുട്ടനാട്ട് ഏരിയായിലൊക്കെയാണെൽ എപ്പോഴും വെള്ളം കയറുകേം ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വളർത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വളർത്തുന്നതിനും തീറ്റ കാര്യങ്ങളുവെല്ലാം എല്ലാത്തരത്തിലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ വായു സഞ്ചാരമൊക്കെ ഉള്ള കൂടും അങ്ങനുള്ളതൊക്കെയാണ് പിന്നെ ഉള്ളത് ഈ പട്ടികളുടെ ശല്യമുണ്ട് കാട്ട് പിന്നെ മരപ്പട്ടി അങ്ങനുള്ള പാക്കാനെ ഈ കീരി ഇങ്ങനുള്ളതിൻ്റെ എല്ലാം സാ ശല്യങ്ങളുമുണ്ട് വളർത്തുകാന്നുള്ളത് ഒര് ഇച്ചിരി കൊണ്ട് പോവുന്ന സുരഷിതമായിട്ട് നമുക്കതിനെ ഒക്കെ എടുത്തോണ്ട് വരികായെന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ എല്ലാവരും വളർത്തുന്നുണ്ട് എല്ലാ വീടുകളിലും കാണാം വേസ്റ്റും കാര്യങ്ങളുവൊക്കെ ഉണ്ട് അപ്പം കോഴികൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ആ വേസ്റ്റൊക്കെ വെറുതെ കളയുന്നതിലും നല്ലതല്ലെ കോഴിയെ ഒക്കെ വളർത്തുമ്പം അത്ങ്ങൾക്ക് തീറ്റീവാകും നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടകളും കിട്ടും അതുംകൊണ്ട് നമുക്ക് പുറത്തുന്നുള്ള എല്ലാ ഇതിൽ നിന്നും ഒരുവാകാനും പറ്റും അതുകൊണ്ട് കോഴിയെ വളർത്തുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് നല്ല നല്ല കാര്യമൊക്കെ ആണ്